ഹലോ ആ റോളക്സ് റെസ്റ്റോറന്റ് അല്ലേ ഞാന് അവിടുന്ന് നേരത്തെ കുറച്ച് സാധനങ്ങള് ഓര്ഡര് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് എപ്പോഴാ എത്തുക എന്ന് അറിയാന് വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു പായ്ക്ക് ചെയ്യുന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കില് അത് ചൂടാറാണ്ട് കൊണ്ടുവരാന് എന്തെങ്കിലും മാര്ഗമുണ്ടോ കാരണം ചൂട് നഷ്ടപെടാന് പാടില്ല കാരണം എന്നുവെച്ചാല് നമ്മൾ ആ അതെ അതെ തണുത്തു കഴിഞ്ഞാല് അത് വല്ലാണ്ട് എന്തോ പോലെ ആയിപ്പോവും പിന്നെ നമുക്ക് കഴിക്കാന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചൂട് നഷ്ടപ്പെടാണ്ട് എങ്ങനെയെങ്കിലും എത്തിക്കാന് നോക്കണം അതിന് നിങ്ങളുടെ അടുത്ത് ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഇന്സുലേറ്റഡ് ബാഗുകള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഈ ചുടാറാണ്ട് നില്ക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ബാഗുകള് അങ്ങനത്തെ എന്തെങ്കിലും സ സാമഗ്രികള് ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ട് വരുന്നതായിരിക്കും ബെറ്റര് ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ചുടാറി കഴിഞ്ഞാല് കഴിക്കാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ ചൂട് ആറി കഴിഞ്ഞാൽ ഇപ്പം റൈസ് ഒക്കെ ആണെങ്കിൽ അതിന് എന്തെങ്കിലും ഇപ്പം തണുത്തു കഴിഞ്ഞാല് നമുക്ക് അത് കഴിക്കണമെങ്കില് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എനിക്ക് ചൂട് ആറാണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടണം അപ്പം നിങ്ങള് എന്ത് ചെയ്യുക ഇന്സുലേറ്റഡ് ബാഗുകളോ അല്ലെങ്കില് കണ്ടെയ്നര് പോലെ ഉള്ള എന്തെങ്കിലും ഒരു പാക്കേജ് ഉപയോഗിച്ച് എനിക്ക് അത് കൊണ്ടുത്തരിക ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കില് അങ്ങനെ ചെയ്തിട്ട് ഒന്ന് കൊണ്ടുത്തന്നോളൂ കേട്ടോ സ്ഥലം അറിയില്ലേ മാനന്തവാടിയില് നിന്ന് ഒരു ഒരു കിലോമീറ്റര് പോയാല് മതി അഡ്രസ് ഞാന് വാട്സ്അപ്പ് ചെയ്യാം ഓക്കെ